കുറച്ച് വർഷങ്ങൾക്കു മുമ്പുള്ള പഴയ സ്മാർട്ട് ഫോണുകൾ പഴയ ഫോണുകളെന്ന് പറഞ്ഞാൽ സാധാരണ സ്വിച്ച് ഫോണുകളായിരുന്നു അതിലിപ്പോൾ നമുക്ക് ഒരു മാസത്തേക്കൊക്കെ ഒരു അമ്പത് രൂപയ്ക്ക് റീച്ചാർജ് ചെയ്താലൊക്കെ മതിയാവുമായിരുന്നു നമ്മൾ ലിമിറ്റഡ് ആയിട്ടൊക്കെ കോൾ ചെയ്യൂള്ളൂ ജസ്റ്റ് കോൾ ചെയ്യാനുള്ള മാത്രം പൈസ കയറ്റിയാൽ മതിയായിരുന്നു അതുപോലെ ഒരുപാട് ചാർജ് നിൽക്കും ഒരാഴ്ചയൊക്കെ ഒരു ഫോൺ ചാർജ് നിൽക്കുമായിരുന്നു സ്വിച്ച് ഫോൺ ആയതുകൊണ്ട് പിന്നെ അതിൽ എല്ലാവരെയും വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ വിളിക്കാം അതുപോലെ ഷോർട്ടായിട്ട് മെസ്സേജ് അയക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണുകളായതുകൊണ്ട് അതിൽ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം അതേപോലെ ബാക്കി വാട്ട്സ്ആപ്പ് സോഷ്യൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കാം വീഡിയോ കോള് ചെയ്യാം ദൂരെയുള്ള ആൾക്കാരൊക്കെ ദൂരെയുള്ള ആളുകളെയൊക്കെ നമുക്ക് വീഡിയോ കോളിലൂടെ കാണാം സംസാരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ എന്താ പറയുക ഇതിൽ റീച്ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ പണ്ട് പണ്ടൊക്കെ പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് റീച്ചാർജ് ചെയ്താൽ മതിയാകും ഇപ്പം അങ്ങനെയല്ല നമുക്ക് മാസം ഒരു മുന്നൂറ് രൂപയ്ക്കെങ്കിലും റീച്ചാർജ് ചെയ്യണം എങ്കിലേ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള റീചാർജിന്റെ കാര്യത്തില് വളരെ വ്യത്യാസമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റാ സ്പീഡ് കിട്ടുന്ന സിമ്മുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ട് അങ്ങനെയൊന്നുമല്ല ഏതെങ്കിലും ഒരു സിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവിടവും റേഞ്ച് കിട്ടുമായിരിക്കും ഇപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടവറ് റേഞ്ചും സ്പീഡ് ഉള്ള സിമ്മുകൾ ഒക്കെ ഉപയോഗിക്കണം ഇപ്പോൾ കൂടുതൽ പേരും ജിയോ സിമ്മൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിങ്ങനെ മന്ത്ലി മാസം ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെയൊക്കെ റീചാർജ് ചെയ്യാം ഡെയിലി ഒരു ഒന്നര ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി നെറ്റ് നമുക്ക് കിട്ടുന്ന പോലെ റീചാർജ് ചെയ്യണം ഇപ്പോൾ നമുക്കിപ്പോൾ പണ്ട് പറഞ്ഞാൽ മാസം ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു എഴുപത് രൂപയുടെ ഒക്കെ ചിലവേ വരുള്ളു ഫോൺ റീചാർജ് ചെയ്യാനും മറ്റുമായിട്ട് എന്നാൽ ഇപ്പം അങ്ങനെയല്ല മാസം ഒരു മുന്നൂറ് രൂപ മിനിമം നമുക്ക് റീചാർജിന് വരുന്നുണ്ട്